ആ ഇത് അ ടൂ വീലറൊക്കെ റെൻ്റിന് കൊടുക്കുന്ന ആളാണോ ഞാൻ ഞങ്ങൾ പ്രോജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടെ ഞങ്ങൾ കോട്ടയത്തൂന്ന് വന്നേക്കുന്ന വിദ്യാർഥികളായിരുന്നു ഒരു പ്രൊജക്റ്റ് ആ ഇടുക്കിയിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് കോട്ടയത്ത്ന്നാണ് വന്നേക്കുന്നത് ഞാനും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു നാല് പേരും ഉണ്ട് ഞങ്ങൾ അഞ്ച് പേരാണ് മൊത്തം ഉള്ളത് ആ നമ്മൾ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യണം ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസം തങ്ങി പ്രൊജക്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്ത്ന്ന് പോകാനുള്ളതാണ് അപ്പം ഈ ഞങ്ങൾ ഒരു മാസത്തോളം ഉണ്ടാകും ആ ഒരു മാസം ഇവിടെ താമസിച്ച് മറ്റും പ്രൊജക്റ്റ് ആ സ്കൂട്ടിയും ബുള്ളറ്റും അതുപോലെ തന്നെ ബൈക്ക്ല്ലേ ഇങ്ങനുള്ള ആ ഉള്ളത് അല്ലേ അപ്പം ആ അത് ഞങ്ങൾക്ക് ഈ ഒരു ദിവസത്തേന് ഇരുനൂറ്റി അൻപത് രൂപ അത് വാടക മാത്രം അപ്പം ഞങ്ങൾ പെട്രോളൊക്കെ ഞങ്ങൾ തന്നെ അടിക്കണമോ ആ ആ ആയിരത്തി ഇരുനൂറ്റി അൻപത് അപ്പം ഒരു ആ ഈ വാഹനങ്ങൾ എല്ലാം നല്ല കണ്ടീഷനുള്ളതാണോ സ്കൂട്ടിയും ബൈക്കും ബുള്ളറ്റെ പുതിയ വണ്ടികളാണ് അതിൻ്റെ പേപ്പറൊക്കെ റെഡിയാണല്ലോ അല്ലേ ബുക്കും പേപ്പറൊക്കെ ഉള്ളതാണോ

ആണോ ആ ഉവ്വാ ഇനി ഞങ്ങൾ ആ ഇനി ഞങ്ങൾ പോകുന്നത് പോലെ ആ ഉവ്വാ അപ്പം ഞങ്ങളെ ഞങ്ങൾ ഈ വിദ്യാർഥികളാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ്സൊന്നും ഉള്ളവരല്ല ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമൊന്നും ഇല്ല ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ് അപ്പം ഏറ്റോം കുറഞ്ഞ റേറ്റിൽ ഞങ്ങൾക്ക് ഇത് വാടകക്ക് കിട്ടിയാലാണ് ഞങ്ങൾക്ക് ഇത് പ്രൊജക്റ്റ് കംപ്ലീറ്റാക്കി പോകാനായിട്ട് പറ്റുകയുള്ളു കൂടിയ റേറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിപ്പോൾ ഇടുക്കീന്ന് പറയുമ്പോൾ അവിടെ കയറ്റോം ഇറക്കമൊക്കെ ഉള്ള സ്ഥലങ്ങളാണല്ലോ നല്ല ഹൈ റേഞ്ചല്ലേ ഹൈ റേഞ്ച് കൂടുതൽ കയറ്റമോ ഉണ്ട് ഇറക്കമൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ നാട്ടിൽ നിന്ന് വ്യത്യസ്ത അല്ലേ അപ്പം നല്ല പവറുള്ള വണ്ടി പവറുള്ള വണ്ടിയുണ്ടെങ്കിൽ കയറ്റമൊക്കെ പെട്ടെന്ന് ആവുകേലെ ബുള്ളറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ ആയിരത്തി ഇരുനൂറ്റി അൻപത് രുപയാകും ബൈക്കാണേൽ അത് ആയിരം രൂപയല്ലേ മൂവ്വായിരം രൂപയ്ക്ക് സ്കൂട്ടിക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ സ്കൂട്ടീം കൊണ്ട് പോയി കഴിഞ്ഞാൽ കയറ്റമൊക്കെ കയറി പോകുമോ ആ ആ ആ ആ ഉവ്വാ ആ

ആ ആ ഉവ്വാ ആ ഉവ്വാ ആ

ആ അത് ഈ ഒരു ദിവസത്തേന് എടുക്കുന്നതും അതുപോലെ ഒരു മാസത്തേന് വാടകക്ക് എടുക്കുമ്പോഴും അതിൻ്റെ റേറ്റിന് വ്യത്യാസമുണ്ടോ അപ്പം അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച തൊട്ട് നമുക്ക് ഇവിടെ വന്നേക്കാമെന്ന് ഓർത്താണ് വന്ന് തിങ്കളാഴ്ച മുതൽ പിന്നെ ഒരു കൃത്യം ഒരു മുപ്പത് ദിവസത്തേന് അപ്പം തിങ്കളാഴ്ച മുതലൊരു കൃത്യം ഒരു മുപ്പത് ദിവസത്തേന് വാടകക്ക് കിട്ടിയാൽ ഉപകാരം ആയിരുന്നു അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളോ ഞങ്ങൾക്ക് ലൈസൻസൊള്ളരാ ഞങ്ങൾ എല്ലാവർക്കും ലൈസൻസൊള്ള ആ ലൈസൻസൊള്ളതാണ് എല്ലാവർക്കും അപ്പം അതിൻ്റെ കൂടെ ഹെൽമെറ്റ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ ഹെൽമെറ്റും ബൈക്കിൻ്റെ കൂടെ ഹെൽമെറ്റും കൂടെ തരുമോ

ആ ഉവ്വാ ആ ഉവ്വാ ആധാർ കാർഡിൻ്റെ കോപ്പിയും ലൈസെൻസിൻ്റെ കോപ്പിയും അത് തരാം വരുമ്പം തരാം ആ ബൈക്കെടുക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമുക്ക് ഇപ്പം സെക്യൂരിറ്റിയായിട്ട് വല്ലതും തരേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും കുറച്ച് അങ്ങനെയാണേൽ നമ്മൾ പൈസ അടക്കണം കുറച്ച് പൈസ അഡ്വാൻസായിട്ട് തരാം അതായത് പിന്നെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് അപ്പം അങ്ങനെയാണങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ പൈസേയും വന്നേക്കാം വന്നിട്ട് ലൈസൻസിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയായിട്ട് വന്ന് ഞങ്ങൾ ബൈക്ക് കൈപ്പറ്റിക്കോളാം ഇനി ഞങ്ങൾ സൂക്ഷിച്ച് ബൈക്കോടിക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു അപ്പം തിങ്കളാഴ്ച്ച കാണാം താങ്ക് യൂ ഓക്കെ ആയിക്കോട്ടെന്നാൽ